ജീവിതത്തിൽ എന്തിനാണ് വില ഏറ്റോം വില കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് സമയത്തിനാണ് സമയം എന്ന് പറയുന്നത് ഒരു അമൂല്യമായ വസ്തുവാണ് വെള്ളത്തിന് എത്ര പ്രാധാന്യമുണ്ട് അത്രത്തോളം തന്നെ അതിനേക്കാൾ കൂടുതൽ തന്നെ സമയത്തിൻ്റെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സമയ നിഷ്ഠ പാലിച്ചാൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം ഒരിക്കൽ സമയം നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും നമ്മുടെ കണ് കൈയ്യിൽ ചിലപ്പോൾ കോടിക്കണക്കിന് എമോ പൈസ ഉണ്ടാവാം പക്ഷേ ആ സമയം ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടണം നമ്മൾ നഷ്ടപ്പെട്ട ഓരോ സെക്കൻറ്റുകൾക്കും അതിനെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ പോലും അത് തിരിച്ച് കിട്ടില്ല സമയം വളരെ നല്ലതിന് ഉപ്പയോഗിക്കുന്ന ആൾ എപ്പോഴും വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് നമുക്കറിയാം പല ബിസ്സ്നസ്സ്ക്കാരാണങ്കിലും സാധാരണക്കാരാണങ്കിലും വിജയിച്ചവരുടെ നോ നോക്കുകയാണെങ്കിൽ സമയം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നി അപരിചിതമായ കാര്യങ്ങൾ ശ്രദ്ധ വ്യതിചരിക്കുമ്പോൾ നമുക്ക് സമയം നഷ്ടപ്പെടും പിന്നെ ഒന്നും ചെയ്യാൻ സമയമില്ലാത്ത ദിനങ്ങൾ ആശ്ചര്യപ്പെടുന്നു സജ്ജീകരിച്ച് എല്ലാ ലക്ഷ്യം നിറവേറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നു മൾട്ടിടാസ്ക്കിങ് എന്ന അവസ്ഥയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ജോലികൾക്കിടയിൽ എല്ലാം തകർന്നു പോകുന്നു തൽഫലമായി ക്ഷോപം നമുക്ക് പലവിധത്തിലുള്ള പ്രെഷറ്കൾ കാര്യങ്ങളക്കെ നമുക്ക് വരാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് സമയം വളരെ നല്ല നിലയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ സമയം വളരെ നല്ല നിലയിൽ ഉപയോഗിക്കണമെങ്കിൽ പല ആൾക്കാരും വിജയിച്ചിട്ട് ഉണ്ട് ആധുനിക കാലത്ത് ജോലി പഠനം ശിശു പരിപാലനം വ്യക്തി ജീവിതം എന്നിവ സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഏതൊരു സ്ത്രീയെ പോലെയും ജീവിച്ചതിൻ്റെ എല്ലാ മേഘലയിലും സംയോജിപ്പിക്കാൻ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ട് പോവാന്നെലും വളരെ അധികം സ്വപ്നങ്ങൾ കാണാറുണ്ട് അങ്ങനെ എല്ലാത്തിനും മതിയായ സമയമുണ്ട് അതിനാൽ ഞാൻ പഠിക്കാൻ പുറപ്പെട്ടു ഈ വിഷയത്തിൽ ഇതിനകം നിരവധി ഗവേഷണങ്ങൾ നടത്തീട്ടുണ്ട് അപ്പം സമയം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ച് കിട്ടുന്നു എന്ന് പറയുന്നത് വളെ കിട്ടാത്ത ഒരവസ്ഥയാണ് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഓരോ സെക്കൻസിനും അതിൻറ്റേതായ വാല്യൂകളുണ്ട് നമ്മളിപ്പോൾ പി റ്റി ഉഷയെ ഉദാഹരണം എടുക്കയാണെങ്കിൽ പി റ്റി ഉഷ ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടപ്പെട്ടത് വെറും സെക്കൻറ്റുകൾ മാത്രമാണ് നമുക്കൊരു വിദ്യാർത്ഥി എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയിൽ ഒരു വിഷയം തോറ്റാൽ അദ്ദേഹം പിന്നെ അടുത്ത എക്സാം എഴുതേണ്ടത് അടുത്ത ഒരു വർഷമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർഷം പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വർഷം പോയി അദ്ദേഹം പ പഠിച്ചതിന് ശേഷം ജോലിക്ക് കിടന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട്തന്നെ സമയം വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടും ജീവിതത്തിൽ നമ്മളേറ്റവും മൂല്യം കൽപ്പിക്കേണ്ടത് സ് സമയത്തിൽ നിന്നാണ് സമയത്തിൻ്റെ വാൽ ഒരിക്കലും നമുക്ക് നിജപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ മനോഹരമായി നല്ലതിനെ ചെയ്യണമെങ്കിൽ സമയത്തിനെ കൃത്യമായ നമ്മൾ പ്ലാനിങ്ങോടുകൂടി ചെയ്യേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നമ്മളെങ്ങനെ ചിലവഴിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ പട്ടിക ഉണ്ടാക്കണം അതായത് പ്ളാനിങ് വളരെ നന്നായി ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് ഏതാണ് രണ്ടാമത്തത് ചെയ്യേണ്ടത് ഏതാണ് വള് എല്ലാം നമ്മൾ ഒരു കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് എഴുതി വെച്ച് അത് ഒരു ഷെഡ്യൂളാക്കി നമ്മൾ പോകണം അതേപോലെ ഒരു സ്വതന്ത്രമോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ ഒരു മണിക്കൂറുകളോ നമ്മളിൽ നിന്ന് പോവുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉള്ള നമ്മളെ ചിലപ്പം നമുക്ക് അറുപത് വർഷമായിരിക്കാം ദൈവം തന്നത് പക്ഷേ ഒരു ദിവസം പോവുമ്പോൾ ആ അറുപത് വയസ്സിൽ നിന്നാണ് കുറഞ്ഞ് പോകുന്നത് അപ്പോൾ ജീവിതത്തിലത് നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാത്ത ഒരാവശ്യമായാണ് അപ്പോൾ നമ്മൾ എപ്പം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടീട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ മുൻഗണന ക്രമം ഉണ്ടാക്കണം രണ്ടാമത്തത് കാത്തിരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക മൂന്നാമത്തൊരു ചെയ്യേണ്ടത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവ മുൻ നിരയിൽ തന്നെ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളത് പരാജയപ്പെടും അതായത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് നാലാമത്തത് ചെറുതും അടിയന്തരവുമല്ലാത്ത കാര്യങ്ങളാണ് അതായത് ചെറിയ കാര്യങ്ങളാണ് വലിയ നിർബന്ധമായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പം അത് നമുക്ക് പിന്നെ ചെയ്താലും മതി പക്ഷേ ആദ്യത്തെ ഗ്രൂപ്പിൽ പറഞ്ഞത് മുൻഗണന കേസുകളാണ് അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഒന്ന് നമ്മൾ മിസ്സാക്കിയാൽ അത് പിന്നെ നമ്മൾ ജീവിതത്തിൽ പരാജയത്തിലേക്ക് തന്നെ അത് എത്തിക്കും നിങ്ങൾ നമുക്ക് കാണാവുന്ന ആദ്യം ചെയ്യാൻ പറ്റുന്നത് ആദ്യം തന്നെ ചെയ്യണം രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത് ചെയ്യണം അങ്ങനെ നമ്മൾ മുൻഗണനാപരമായി ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയത്തിലേക്ക് നമുക്ക് എത്തും വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ സമയം വളരെ നന്നായി വിനിയോഗിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് ഇവിടെ ഇച്ഛാശക്തി പ്രധാന പങ്ക് വഹിക്കും കാരണം നമുക്ക് ചെയ്യേണ്ടതിന് നമുക്ക് നല്ലൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി നല്ലതിനെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിയോ ബ്ളോഗറോ അല്ലെങ്കിൽ സമയം പാഴാക്കുന്നവരോ എന്ന് വിളിക്കുന്ന നിങ്ങൾ സമയത്തു നിന്ന് എല്ലാത്തിനേം ചെറുക്കാൻ നിങ്ങൾ പഠിക്കണം ചട്ടങ്ങൾ പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളാണ് ഇന്ന് അറിയാലോ പല തരത്തിൽ സോഷ്യൽ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാം ആകട്ടെ ഫേയ്സ്ബുക്ക് ആകട്ടെ അതിലൊക്കെ നമ്മുടെ സമയത്തുന്ന് തിന്ന്കളയാണ് ചെയ്യുന്നത് ആക്ച്വലി അതുകൊണ്ട് പലപ്പോഴും നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല സമയം വെറുതെ പാഴാക്കിക്കളയ്യാണ് അതുകൊണ്ടുതന്നെ അങ്ങനെയുള്ളത് മാക്സിമം നമ്മൾ മനസ്സിലാക്കണം ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചിലവാക്കുക അനാവശ്യമായ കാര്യങ്ങൾക്ക് ഈ സമയം ചിലവഴിക്കാതെ അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ചിങ്കിലു നമുക്ക് നല്ല വിജയം ഉണ്ടാക്കാൻ പറ്റും സോ പിന്നെ നമ്മൾ സോഷ്യൽ നെറ്റ്വക്കിങ്ങിലേക്ക് ഒരുപാട് സമയങ്ങൾ പാഴാക്കുന്നുണ്ട് എത്ര സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അതൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനും അതേപോലെ ജോലി സമയം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം പലപ്പോഴും ജോലീൽ നമ്മൾ എന്താ എട്ട് മണിക്കായിരിക്കും നമുക്ക് സമയം പക്ഷേ പലപ്പോഴും നമ്മളാ ഈ സമയങ്ങൾ വെറുതെ പാഴാക്കി കളയുകയാണ് അപ്പം നമ്മുടെ നമ്മളെന്ത് ചെയ്യണം അവിടെ വന്നാൽ നമ്മുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കണം അത് ഓർത്ത് വെക്കണം അത് വളരെ നല്ല രീതിത്തന്നെ ചെയ്യണമെങ്കിൽ ജോലി സലത്തെ ചുമതലയാണ് ഏറ്റോം പ്രതിഫലം നൽകുന്നത് കാരണം ജോലി സലത്തെ വളരെ നന്നായിട്ടും പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശമ്പളം വർദ്ധിക്കും ശമ്പളം വർദ്ധിക്കുത്കൂടി നമ്മുടെ കുടുംബത്തിൻ്റെ ആവാസവ്യവസ്ഥ വർദ്ധിക്കും അതുകൊണ്ട്തന്നെ ജോലി വളരെ നന്നായിത്തന്നെ നമ്മൾ ശ്രദ്ധിക്കൂ ശമ്പളം ഒക്കെ വർദ്ധിക്കണമെങ്കിൽ നമ്മളത് നന്നായിട്ട് തന്നെ ജോലി ചെയ്യേണ്ടതാണ് പല സ്ത്രീകളും വിജയികളായി പ്രത്യക്ഷപ്പെടാനും മൾട്ടിടാസ്ക്കിങ് ആരംഭിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മൾട്ടിടാസ്ക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു മുന്നെ വിപരീതമാകാതെ നോക്കണം ഒരു ദിവസം ഇരുപത് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായി അവരൊന്നെങ്കിലും പാതി വഴിയിലോ അല്ലെങ്കിൽ മോശമായോ അശ്രദ്ധമായോ ചെയ്യുന്നു പരമാവധി വിഷധാംശങ്ങൾ നഷ്ടപ്പെട്ടേക്കാം തൽഫലമായി നിങ്ങൾ ഒരു കാര്യത്തിന് ചിലവഴിക്കുന്ന കൂടുതൽ സമയം വേറെ ഒരു കാര്യത്തിന് ചിലവഴിക്കുന്നതിലേക്കെത്തും അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൺട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് നന്നായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ മൾട്ടിടാസ്ക്കിങ് ചെയ്യുമ്പോൾ പലപ്പൊഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അത് വളരെ നല്ല രീതിയിൽ ചെയ്യാതെ മറ്റുള്ളവയിലേക്ക് പോയി നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നൊരു അവസ്ഥയിലേക്കെത്തിക്കും ജോലി സമയം എങ്ങനെ ഉപയോഗിക്കണം ഒരേ സമയം ഒരു ജോലി ചെയ്ത് ഉപയോഗിച്ച് സമയം ചിലവഴിക്കാതെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക സംഭവങ്ങൾ അവരുടെ സമയം വളരെ വിവേകത്തോടു ഉപയോഗിക്കുന്നു ജോലി അവരുടെ കഴിവുകൾക്ക് പ്രത്യേക ഉപയോഗം കണ്ടെത്തുന്നു ജോലി പൂർണ്ണമായും മുഴുകാൻ അവർക്ക് കഴിയുന്നു പലർക്കും കാണാൻ ചെയ്യാനുണ്ട് അതുകൊണ്ട്തന്നെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എപ്പോഴും പറയാം ഒരേ നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെയാണ് സമയവും സമയത്തിനെ നമുക്ക് നല്ല രീതിയിലും ഉപയോഗിക്കാൻ പറ്റും അതു പോലെ മോശമായും ഉപയോഗിക്കാനും പറ്റും സമയം അതിൻ്റെ വില മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ അതിന് വളരെ നല്ലത് തന്നെ അത് കൊണ്ടുപോകും അത് നമ്മുടെ ജീവിതത്തിന് വളരെ അധികം ഉപ കരിക്കുവേം ചെയ്യും പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എര എല്ലാ ദിവസവും ഉറങ്ങുന്നത് ഒരെട്ട് മണിക്കൂറെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഉറക്കത്തിന് അത്ര മതി പക്ഷേ അത് നമ്മൾ ഒരു പത്ത് മണിക്കൂറാണ് ചെയ്യുന്നുണ്ടെങ്കിലെന്താവും നമ്മുടെ ആ ഉപയോഗം കൂടുന്നത് മൂലം ഉറങ്ങാൻ അനാവശ്യമായി നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ എന്താവും നമ്മുടെ ജോലി സമയം കുറയും അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം കുറയും അപ്പോൾ ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റോം വിലമതിക്കുന്നത് സമയമാണ് സമയം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒരവസ്ഥയാണ് സമയം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പറ്റും നല്ലൊരു വിജയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു